ഹലോ കണങ്ങണ്ടി സ്റ്റോര്സ് എന്താണ് വേണ്ടത് സാര് അതെ സാര് എന്താണ് സാറിന് വേണ്ടത് അയ്യോ സാര് ഇവിടെ ടീ ഇവിടെ ടീ വി ഏ സി വാഷിംഗ് മിഷന് എലെക്ട്രോണിക്ക് സാധനങ്ങള് എല്ലാം ഉണ്ട് സാര് സാറിന് എന്താണ് വേണ്ടത് ഓക്കേ സാര് നാൽപ്പത്തി നാല് ഇഞ്ച് വരുന്ന ടീ വി അയ്യായിരം അമ്പതിനായിരം രൂപ അറുപത്തി അഞ്ചിന്റെ ടീ വി എൺപതിനായിരം രൂപ ഡബിള് ഡോര് ഫ്രിഡ്ജ് മുപ്പ ത്തി അയ്യായിരം പ്ലസ് ജീ എസ് റ്റി ഒരു ലക്ഷം രൂപ സാര് ആ അതു കഴിഞ്ഞു വാഷിംഗ് മിഷ്യന് ഫുള് ഓപ്ഷന് വാഷിംഗ് മിഷ്യന് വെറും പതിനായിരത്തി പതിനഞ്ചായിരം രൂപ സാര് ഏ ഏ സി ഏ സി സാധനങ്ങളൊക്കെ സാറിന് ആവശ്യമുണ്ടോ സാര് ഏ സി ലോയിഡിന്റെ കുറഞ്ഞത് നോക്കാനാണോ ഓക്കേ സാര് സാര് ലോയിഡിന്റെ ഏ സി നല്ല സാധനമാണ് സാര് ലോയിഡിന്റെ ഏ സി ഞാന് റെക്കമെന്ഡ് ചെയ്യുന്നു സാറിന് അത് മതിയോ സാര് ഓ അത് എന്താണ് മുപ്പത്തി അഞ്ചായിരം രൂപ ഉം സാര് ആ ഉം സാറിന് എന്തൊക്കെയാണ് വേണ്ടത് ഓരോരോ ഏ സി വച്ചു ഏ സി ഏസിന്റെ സ്റ്റെബിലൈസറും എല്ലാം കൂടി ആറ് റൂമിലും കൂടെ കാല്കുലേറ്റ് ചെയ്താല് മുപ്പത്തി അഞ്ച് ഇൻ്റു ആ നല്ല ഒരു ടോട്ടല് എമൌണ്ട് ആകും സാര് എബോവ് വണ് ലാക്ക്

ആ ഈ എം ഐ ഓപ്ഷന് സാറിന്റെ ബാങ്ക് അക്കൌണ്ട് എതോക്കെയാണെന്നുള്ളത് എസ് ബി ഐ കൊടക് ബാങ്ക് ഇതിൽ ഏതെങ്കിലും ബാങ്ക് ഉണ്ടോ സാർ ബജാജ് ഫിനാന്സ് ഇതില് ഏതെങ്കിലും ഉണ്ടോ സാര് ഇല്ല സാര് എസ് ബി ഐയില് ബുക്ക് ചെയ്താൽ നമുക്ക് ഇരുപത്തി അഞ്ച് പേര്സന്റേജ് ഓഫ് കിട്ടും ഈ എം ഐം അടയ്ക്കുന്നതില് കുറവ് അടച്ചാല് മതി സാര് പിന്നെ കൊടക് ബാങ്ക് ആണെങ്കില് അമ്പത് പേര്സന്റേജ് നമുക്ക് കുറവ് അടച്ചാല് മതി ആ ഇതിൽ ഏതാണ് സാര് ഏത് ബാങ്ക് അക്കൗണ്ടിന്റെ സാധനമാണ് സാറിൻ്റെ അടുത്ത് ഉള്ളത് സാര് ഓ എസ് ബി ഐ സാറിന് ഇരുപത്തി അഞ്ച് പേര്സന്റേജ് ഓഫ് മാത്രമേ കെട യ്ക്കുകയുള്ളൂ കൊടക് ബാങ്ക് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓഫര് കെടയ്ക്കുമായിരുന്നു അമ്പത് പേര്സന്റേജ് ഓഫര് കെടയ്ക്കും ആ ഫ്രിഡ്ജ് ഓവന് എല്ലാം കൂടെ എന്തൊക്കെയാണ് സാര് വേണ്ടത് എല്ലാത്തിന്റെയും ഒരു ലിസ്റ്റ് പറയൂ ആഹ് ഡബിള് ഡോര് സാംസങ്ങിന്റെ ഫ്രിഡ്ജ് ഉണ്ട് സാര് വെറും ഒന്നര ലക്ഷം രൂപ നമുക്ക് വേണമെങ്കിൽ അതിൽ ഒരു മറ്റേ കൊടക് ബാങ്കിന്റെ ഓഫറും കൂടി ഇട്ട് ഈ എം ഐ ഓഫറില് വരുമ്പോള് ഒന്ന് നാൽപ്പത്തി അഞ്ചാവും സാര് ഓക്കേ സാര് എല്ലാം നമുക്ക് സെറ്റ് ചെയ്യാം സാര് സാര് സാറിന് എല്ലാം ഓക്കേ അല്ലെ സാര് അടുത്ത ദിവസം വരൂ സാര് ഹാവ് എ നൈസ് ഡേ സാര് ഓക്കേ